ഈ സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഈ വളർച്ചയ്ക്കൊപ്പം മലയാളി മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ വളരെയധികം കൂടുതലാണ് ഈ ഒത്തിരിയധികം ഈ അതർ ഭാഷകൾ അതായത് അതർ ലാംഗ്വേജസ് നമ്മുടെ ഈയൊരു കാലഘട്ടത്തിലുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഭാഷകൾ പഠിക്കുന്നതിലൂടെ മലയാളത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് മലയാളഭാഷയിൽ വന്ന മാറ്റമെന്ന് പറയുന്നത് വളരെയധികം വളരെയധികം നമ്മുടെ ഭാഷയെ തകർക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഇൻ്റർനെറ്റിലൂടെയും അല്ലാതെ ഇൻ്റർനെറ്റിലൂടെയും സാങ്കേതികവിദ്യയിലൂടെയും ഈ വരുന്ന ഭാഷയുടെ ഉപയോഗങ്ങൾ ഈ ഒത്തിരിയധികം മലയാളഭാഷയെ മലയാളഭാഷ ഉപയോഗങ്ങളിലൂടെ വരുന്ന അതർ ഭാഷകളിലൂടെ വരുന്ന ഉപയോഗത്തിൻ്റെ കാഠിന്യം മൂലം നമുക്ക് അത് ഒത്തിരിയധികം മാറ്റം വരുന്നുണ്ട് ഈ ഈ മലയാളഭാഷ മലയാളഭാഷാ ഉപയോഗമെന്ന് പറയുന്നത് നമ്മൾ പണ്ടുതൊട്ട് മലയാളികൾ ശീലിച്ചുവന്നിരുന്ന ഒന്നാണ് എന്നാൽ ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെയും ഈ സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം മലയാളിയുടെ ഭാഷയിൽ വന്ന ഭാഷയുടെ മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് കാര്യങ്ങള് ഇംഗ്ലീഷ് വാക്കുകൾ അല്ലെങ്കിൽ വേഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് എന്നാൽ പണ്ട് നമ്മൾ അങ്ങനെയല്ലായിരുന്നു ഈ സാങ്കേതികവിദ്യയും സാങ്കേതികവിദ്യയും ഈ ഇൻ്റർനെറ്റിൻ്റെയുമൊക്കെ ഈ കാലം വരുന്നതിനുമുമ്പ് നമ്മൾ നമ്മുടെ നാട്ടിലുപയോഗിച്ചിരുന്ന മലയാളം അച്ചടിഭാഷ അത് ഇപ്പോൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല ഇപ്പോൾ കുട്ടികൾ ഇപ്പം വരുന്ന കുട്ടികൾ പോലും മൊബൈല് കാണുന്നതിന്റെയും ഇൻ്റർനെറ്റിലൂടെ ഓരോന്ന് സെർച്ച് ചെയ്യുന്നതിന്റെയും അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ ഒരു തലമുറ പോലും ഇപ്പോള് ഈ മലയാളം ഭാഷ വളരെയധികം മറന്നുപോകുന്നൊരു സാഹചര്യമുണ്ടാകുന്നുണ്ട് പിന്നെ മലയാളികളാണെങ്കിൽപ്പോലും പുറത്ത് അതായത് വെളിരാജ്യങ്ങളിൽ പോയി സെറ്റിലായി താമസിക്കുന്നവര് ഇപ്പോള് അവിടുത്തെ ഭാഷയാണ് അവരുടെ കുട്ടികൾ കൂടുതലും സംസാരിക്കുന്നതും കാര്യങ്ങളും അവർക്ക് ഒന്ന് നാട്ടിൽ വന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് നമ്മുടെ മലയാള ഭാഷ വെച്ച് സംസാരിക്കാനുള്ള ഇത് ഇല്ല അതിനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല